ആ ഹലോ ഇത് അശ്വതി ബാങ്കാണോ ആ ഞങ്ങൾക്കൊരു ലോൺന് വേണ്ടീട്ട് അപേക്ഷിക്കാനായിരുന്നു ഞങ്ങൾക്കൊരു ബിസിനസ് ലോണാണ് നമുക്കിപ്പം ആവശ്യം ഒരു പത്ത് ലക്ഷം രൂപ ആ ഞങ്ങൾക്കൊരു സോപ്പിൻറ്റൊരു ഫാക്ടറി തുടങ്ങാനാണ് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ഓ പാൻ കാർഡ് ആവശ്യമുണ്ടോ ഇതിന് അയ്യോ ഞാൻ പാൻ കാർഡ് എടുത്തിട്ടില്ല ഇതിപ്പോൾ എവടന്നെടുക്കുവാണ് പാൻ കാർഡ് ആ ഇതിന് ഏകദേശം എത്ര എമൗണ്ടൊക്കെ വരും പാൻ കാർഡെടുക്കാൻ ആ ഓക്കെ അപ്പോൾ ഞാനതെടുക്കാം പിന്നെയീ ലോണിന്നന്നെ വേറെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ഞങ്ങളൊരു പത്ത് വർഷത്തേക്കിടാനാണ് ഉദേശിക്കണത് അപ്പയിൻ്റെയി ഇൻട്രസ്റ്റ് എത്ര വരും അതപ്പോൾ മൊത്തം അടവ് വരുമ്പോൾ എന്തായാലും വരൂല്ലേ എനിക്ക് വേറൊരു ഞാൻ വേറൊരു ലോണെടുത്തുണ്ടായിരുന്നു വീട്ടിൽ വീടിൻ്റെ ലോണ് വെച്ചിട്ട് അത് ഇതിനൊരു പ്രശ്നാവോ ഞാനൊരു അഞ്ച് ലക്ഷം വീടിൻ്റെ ആധാരം വെച്ചൊരു ലോണെടുത്തുണ്ട് അപ്പം ഇതിന് വല്ലോയീ ആധാരം പോലത്തെ എന്തെങ്കിലും വസ്തുവക വസ്തൂൻ്റെ ആധാരൊക്കെ വെക്കണോ

ഓക്കെ എനിക്ക് മാസ വരുമാനം ട്വൻറ്റി ഫൈ തൗസൻണ്ടേള്ളു അപ്പം പാൻ കാർഡൊണ്ടങ്കിൽ നമക്കോൾമോസ്റ്റ് കാര്യങ്ങൾ റെഡിയാവൂലേ ആ അപ്പയീ ലോണ് പത്ത് ലക്ഷത്തിന് മാത്രം കിട്ടുള്ളോ ഒരു പതിനഞ്ച് ലക്ഷം ആക്കാൻ പറ്റുവോ ആ നമക്കൊരു റ്റൊൻറ്റി ആ ഒരിരുപത് വർഷത്തേക്കൊക്കെ ലോണിടാനൊക്കെ പറ്റുവോ അപ്പം എത്ര വരും ഏകദേശം ഇൻട്രസ്റ്റ് ഓ അത്രേം കൂടുല്ലേ ആ നമുക്ക് ഇപ്പോൾ ഓൾറെഡി എൻ്റെ കൈലൊരു പത്ത് ലക്ഷം രൂപയുണ്ട് മൊത്തം ഇതിൻ്റെ ഇൻവെസ്റ്റ്മൻറ്റ് ഇരുപത് ലക്ഷമാണ് പക്ഷേ ഒരു ഒരു പത്ത് ലക്ഷം പ്ലസ്സൊരു അതിൻ്റെയുള്ളിയത്തെ കാര്യങ്ങളൊക്കെയൊരു പത്ത് ലക്ഷം കൂടെ ചിലപ്പം വേണ്ടി വരും ഓ ഞനെന്തായാലുമൊന്നാലോചിച്ചിട്ട് ഞാനെന്തായാലും പാൻ കാർഡെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനേ സാർനെ നേരിട്ട് കണ്ടിട്ട് മീറ്റ് ചെയ്യാം ഓക്കെ ശരി